പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ നമുക്കെന്താ പറയാ മനസ്സിന് ഒരു സുഖം കിട്ടും നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സങ്കടം നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ പറയുമ്പോൾ നമുക്കതിനനുസരിച്ചിട്ടുള്ള ഒരു സമാധാനവും സന്തോഷവും അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഉള്ളിലൊരു മനസ്സിൻ്റെ ഉള്ളിലൊരു സമാധാനം കിട്ടും എന്തായാലും അപ്പം ഈ ചില ദൈവങ്ങളെ ചിലർ ആരാധിക്കുന്നില്ലെ അതായത് എന്താ പറയാ ചില ദൈവങ്ങളോട് ഇപ്പം അയ്യപ്പനോട് എനിക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് മുത്തപ്പനെയാണ് അപ്പോൾ എന്തൊരു സങ്കടം വന്ന് കഴിഞ്ഞാലും മുത്തപ്പായെന്ന് വിളിച്ചിട്ടാണ് ഞാൻ തുടങ്ങാറുള്ളത് അപ്പോൾ അങ്ങനെയൊന്ന് പറയുമ്പോഴത്തേക്കുതന്നെ നമ്മൾ ആ ഒരു ദൈവത്തിനെ പോയി കാണുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളില് ആ ദൈവത്തിനെ സങ്ക സങ്കല്പിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അ ഉള്ളിൻ്റെ ഉള്ളീന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിൻറ്റേതായ ഒരു സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ഇന്നിത് നമുക്ക് സാധിച്ച് തരണേ ദൈവമേയെന്ന് പറയുമ്പോൾ അറിയാതെ ആണെങ്കിലും അത് സാധിച്ച് തരും ദൈവമെന്നുള്ള ആ ഒരു ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു തോന്നൽ അതൊക്കെ തന്നെയാണ് പിന്നെ ആരാധനകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് പിന്നേന്ന് പറയുന്നത് എന്താ മനസ്സിൻ്റെ ഇപ്പം നമുക്ക് നമ്മളിപ്പം നമുക്ക് വേണ്ടിയെന്നല്ല നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒരു സമാധാന രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൽ അതർപ്പിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ന അതിൻറ്റേതായ രീതിയിലിള്ള ഒരു ഒരു ഒരു സുഖം കിട്ടും എന്തായാലും കിട്ടും അത് അറിഞ്ഞിട്ടുള്ള ഒരാളു തന്നെയാണ് ഞാനും അപ്പം ആര് പറയാമെന്നുള്ളത് ആണെങ്കിൽ ആരാധനയും പ്രാർത്ഥനകളേയും കുറിച്ചിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ് പിന്നെ ഓരോ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾക്കതിൻറ്റേതായ ഒരു സമാധാനം കിട്ടുന്നുണ്ട് ഇപ്പോൾ പറശ്ശിനിക്കടവ് പോകുമ്പോൾ അത് വേറെ തന്നെയൊരു സന്തോഷമാണ് അ അവിടെ മാത്രമല്ല എല്ലാ ആരാധനാലയങ്ങളും അങ്ങനെ തന്നെയാണ്